കുട്ടികൾ ഇപ്പോൾ കൂടുതൽ സമയം കളിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ബാസ്കറ്റ് ബോൾ ബാറ്റ്മിൻറ്റൺ അതുപോലെ തന്നെ ഫുട്ബോൾ ക്രിക്കറ്റ് ഈ നാലു കളികളിലാണേ ക്രിക്കറ്റ് ഒക്കെ പണ്ടു തൊട്ട് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ മിക്കതായും ഉന്നമനത്തോടു കൂടി വരുന്നില്ല അല്ലെങ്കിൽ ഒ വികസിതം വികസനം ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുന്ന കളിയായി എനിക്ക് തോന്നിയത് ബാസ്കറ്റ് ബോളും ബാട്മിൻടണും അതുപോലെ തന്നെ ഫുട്ബോളുമാണ് നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിരവധി ടർഫുകൾ ടർഫുകൾ പണിയുന്നതു കാണാം ഇതിനു കാരണം എന്നു വെച്ചാൽ ആൾക്കാരുടെ ഫുട്ബോൾ കളിക്കാനുള്ള തുര അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അട്ട്രാക്ഷൻ കൂടി എന്നുള്ളതും മാത്രമാണ് ഏതൊരു നാട്ടിൽ ചെന്നാലും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും രണ്ടോ മൂന്നോ ടർഫിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻ കേസ് അതു നല്ല ഒരു കാര്യം കൂടിയാണ് ഓക്കെ ആൾക്കാരുടെ ചിന്താഗതി മാറ്റി ആൾക്കാർ നമ്മുടെ സ്പോർട്സിനു കൂടുതൽ മൂ മൂല്യം നല്കാനും തന്നെ അതുപോലെ തന്നെ ഇതു നമ്മുടെ രാജ്യത്തെയും അത് രാജ്യത്തെയും നാടിനെയും വളരെ അധികം നന്നായിട്ടു ബാധിക്കുന്ന നന്നായിട്ടു പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ആണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ബാസ്കറ്റ് ബോൾ ആണെങ്കിൽ പോലും ബാസ്കറ്റ് ബോളിനു നമുക്ക് അത്രത്തോളം അത്ര വലിയ ഉന്നമനം ഉള്ള കാ ഉന്നമനം ഉള്ള ഒരു കായിക മേഖല അല്ല എന്നാൽ പോലും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി അധികം ബാസ്കറ്റ് ബോൾ കോർട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ബാഡ്മിൻറ്റൺ കോർട്ടുകളും അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഇതെല്ലാം യുവജനങ്ങളായിട്ട് അല്ലെങ്കിൽ യുവത്വത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉയർത്തി കൊണ്ടു വരുന്ന ഒരു മേഖലയാണ് സ്പോർട്സ് ആ സ്പോർട്സ് ഇവിടെ ഉന്നമിച്ചു കൊണ്ടിരിക്കുന്ന ആണ് നമ്മൾ ഉള്ള സ്പോർട്സിനെ കാട്ടിലും നമുക്ക് ഇനിയും വളരെ വറൈറ്റീസ് ഓഫ് അല്ലെങ്കിൽ വള പല തരത്തിലുള്ള സ്പോർട്സുകളാണ് വരുന്നത് നമുക്ക് എന്നുമുള്ള ക്രിക്കറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഇന്ത്യ എത്രത്തോളം കപ്പ് അടിക്കുമെന്നു ഫുട്ബോൾ ഫുട്ബോളിലും അതുപോലെ തന്നെ ബാഡ്മിൻറ്റൺ അതു പോലെ തന്നെ ബാസ്കറ്റ് ബോൾ ഇതിലൊന്നുമാണ് ഇന്ത്യ ഈ ഒരു മേഖലകളിലാണ് ഇന്ത്യക്ക് ഒന്നും ഒരിക്കലും ഒരു ഒത്തിരി സ്വാധീനം ചെലുത്താൻ സാധിക്കാത്തത് അതുപോലെ തന്നെ ഇന്ത്യ ഫുട്ബോൾ ആണെങ്കിലും നമുക്കറിയാം ഇപ്പോൾ പള പല തരത്തിൽ ഉന്നമനം ഇങ്ങനെ കൈവരിച്ചു വന്നു കൊണ്ടിരിക്കുന്നു നമ്മുടെ ക്യാപ്റ്റൻ സുനിൽ ചോദ്രി ആണെങ്കിൽ പോലും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇനി വരാനുള്ള തലമുറയ്ക്ക് ഇതിനു വളരെ വളരെയധികം ഇന്ത്യ ഉന്നതിയിൽ എത്തിക്കാനുള്ള എല്ലാ കഴിവുകളുമുള്ള ഒരു തലമുറയാണ് ഈ വരുന്നത് അതുപോലെ തന്നെ ഫുട്ബോൾ അതുപോലെ ബാസ്കറ്റ് ബോൾ ബാഡ്മിൻടൻ എന്നീ തലങ്ങളിലൊക്കെ തന്നെ വളരെ അധികം വികസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാർക്ക് പൊട്ടൻഷ്യൽ കിട്ടുന്നുണ്ട് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ അതുകൊണ്ടു തന്നെ ഈ മൂന്നു കായികം ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വളർച്ച ഈ അടുത്ത ഇടയ്ക്ക് വ്യാ വളർച്ച കൂടുതലായിട്ടു തോന്നിയത്